എനിക്കിഷ്ടപ്പെട്ട കായികം പറഞ്ഞാൽ ഫുട്ബോൾ ഫുട്ബോൾ പറഞ്ഞാൽ ജീവനാണ് ഫുട്ബാൾ കളിക്കുക പറഞ്ഞാൽ ഫുട്ബോൾ ഈസ് നോട്ട് ജസ്റ്റ് എ ഗെയിം ഇറ്റ്സ് ആൻ ഇമോഷൻ ഫുട്ബോൾ പറഞ്ഞാൽ നമ്മൾ കളിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പല കളിക്കാർ കയറി വരും പിന്നെ നമ്മൾ ആ കളിക്കാരാവും നമ്മൾ മെസ്സിയെ വിചാരിച്ച് കളിച്ചാൽ മെസ്സിയാവും റൊണാൾഡോയെന്ന് വിചാരിച്ചാൽ റൊണാൾഡോ ആവും അതൊക്കെ അത്രയേ ഉള്ളൂ ആസ്വദിച്ച് കളിക്കണം എന്തു സങ്കടമുണ്ടെങ്കിലും സന്തോഷമുണ്ടെങ്കിലും നമ്മൾ കളിച്ചു തീർക്കും അത് അത്രയേ ഉള്ളൂ ഫുട്ബാൾ ഒരു വികാരമാണ് മലപ്പുറംകാർക്ക് മാത്രം അവകാശപ്പെട്ടതല്ല എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് ഒരു ഫുട്ബോൾ പ്രേമി പറഞ്ഞാൽ അവർ നല്ല മനുഷ്യരാവും എല്ലാ ഒരു ഫുട്ബോൾ ഒരു ഫുട്ബാൾ കളിക്കണ കുട്ടി പറഞ്ഞാൽ അവനൊരു ഒരു മെഷിനറി മാനാവും അവനെന്തൊക്കെ തീരുമാനങ്ങളാണ് എപ്പോഴൊക്കെ എവിടെയൊക്കെ വച്ചെടുക്കണമെന്നു അവനു കറക്റ്റായിട്ട് അറിയാൻ പറ്റും അതാണ് ഫുട്ബോളിൻ്റെ മെയിൻ പോയിൻ്റ് എന്താ ബുദ്ധി ശക്തി കൂട്ടും കായിക ക്ഷമത കൂട്ടും നമ്മളെ ബോഡി നമ്മൾ ഫിറ്റായിട്ടിരിക്കും അതാണ് ഇതിൻ്റെയൊക്കെ പെർഫെക്റ്റ് എക്സാംപിൾ പറയാൻ ഫുടബോൾ പോലെ നല്ലൊരു ഗെയിം വേറെ ഇല്ല അറിയാമെങ്കിൽ കാണിച്ചു തരൂ നിങ്ങൾക്ക് പറയണ പൈസ തരാം